നല്ല ചിത്രങ്ങളെടുക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് ബീച്ച് ആണ് ബീച്ചിലൊക്കെ ആ ഒരു സീനെറീയും ഇതൊക്കെ വൈകുന്നേരങ്ങളെപ്പോഴും കാണാൻ നല്ല രസമായിരിക്കും അതുപോലെ മാർക്കറ്റ് ആൾക്കൂട്ടത്തിന് നടുവിലിരുന്ന് നമുക്ക് നല്ലൊരു ഫോട്ടോ എടുക്കാൻ സാധിക്കും അതുപോലെ പിന്നെ പ്രകൃതി ഇപ്പം ന്യേച്ചറ് ന്യേച്ചറുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ഫോട്ടോസ് നല്ല രീതീയിൽ എടുക്കാം പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പ നമ്മള് ക്ലാസിക് ഫോട്ടോസൊക്കെ ആണെങ്കിൽ നമ്മള് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ വല്ല ക്ലാസ്സിക്കായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടാവല്ലോ ഇപ്പം മലേടെ മുകളില് അങ്ങനെ കുറച്ച് ക്ലാസ്സിക്കായിട്ടുള്ള ഫോട്ടോസ് നമ്മുക്കെടുക്കാം പിന്നെന്ന് പറഞ്ഞാൽ ബെസ്റ്റഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വരുമ്പോൾ ആ ഒരു സ്റ്റേജിലെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ വല്ല ഡിജെ പാർട്ടി ഹാളോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഫെസ്റ്റിവൽ മൂടൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളില് നമുക്ക് പാർട്ടിയം ഉള്ള ഫോട്ടോസ് എടുക്കാം പിന്നെ നമ്മുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടുള്ള നല്ലൊരു ഫോട്ടോസൊക്കെ ഓരോ ഷോപ്പുകളിലൊക്കെ ഇപ്പോൾ ഫോട്ടോയിന് വലിയൊരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ പറഞ്ഞൊന്ന് ഇപ്പം അപ്പം ഉള്ള ഹോട്ടലുകളിലൊക്കെ അല്ലെങ്കിൽ കോഫി ഷോപ്പുകളില് അങ്ങനൊള്ള അവിടെയൊക്കെ ഫോട്ടോ ഫ്രെയിംന് വേണ്ടി ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ടാകും നമുക്ക് അവിടെപ്പോയി ഫോട്ടോ എടുക്കാം അതുപോലെ ഫോട്ടോ ഷൂട്ടിന് വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പോൾ നമ്മള് ഇപ്പോൾ കല്യാണത്തിനൊക്കെ ഇപ്പോൾ അത്കൊണ്ട് ചില ഹോട്ടലുകളിൽ തന്നെ അവര് സെറ്റെയ്ത് കൊടുക്കുന്നുണ്ട്